പരസ്യം ഓരോ ആളുടേയും ലൈഫിൽ ഇമ്പോർട്ടന്റാണ് ഓരോ പരസ്യം കണ്ടിട്ടാണ് ആൾക്കാർ സാധനം വാങ്ങുന്നത് തന്നെ അതിന്റെ ആ പരസ്യം ആൾക്കാരുടെ മുൻപിൽ എങ്ങനെ അത് മുൻപിൽ കൊണ്ട് അവതരിപ്പിക്കുന്നു എന്നതിലാണ് അഡ്വെർടൈസ്മെന്റ് എല്ലാ എല്ലാവരുടേയും ലൈഫിൽ അഡ്വെർടൈസ്മെന്റ് ഭയങ്കര ഒരു ഇതാണ് പരസ്യം അത് ഇന്ന സാധനത്തെക്കുറിച്ച് അവരുടെ മുന്നിൽ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക ആ സാധനം വളരെ ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഉള്ളതിൽ സൃഷ്ടിപരമായതും സ്വാധീനശക്തിയുള്ള പരസ്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഒത്തിരിയുണ്ട് പരസ്യത്തിന്റെ പരസ്യത്തിന്റെ മൂല്യം പരസ്യം ഓരോ വ്യക്തിയുടെയും സാധാരണക്കാരന്റെയും അങ്ങനെ ചെറുതും വലുതും എന്നല്ല എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് പരസ്യം മാറിയിട്ടുണ്ട് ഏതൊരു ഉത്പന്നത്തിലും നമുക്ക് ഇപ്പോൾ നോക്കിയാൽ പരസ്യം കാണാം പരസ്യം ഇല്ലാത്ത ഉത്പന്നം ഒക്കെ ആൾക്കാർ വാങ്ങൽ കുറവാണ് പരസ്യം ഉള്ളതിനൊക്കെ ആൾക്കാർ വാങ്ങാനും ഉണ്ട് കാരണം അതിന്റെ ക്വാളിറ്റി അവർ പറയുന്ന ഇത് അത് അവർ ഒരു പ്രോഡക്റ്റ് ആൾക്കാരുടെ മുന്നിൽ റെപ്രെസെന്റ് ചെയ്യുന്നത് അതിനെ ആൾക്കാരുടെ മുൻപിൽ എത്തിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ അത് വളരെ വ്യത്യസ്തമേറിയതാണ്